ഞമ്മൾടെ അറിവിലുള്ള സർക്കാരിൻ്റെ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അതിപ്പം ഞമ്മക്കറിയില്ല അത് സർക്കാരിൽ തന്നെ അറിയുകയുള്ളു പിന്നെ എന്ന് പറഞ്ഞാൽ ഈ റോഡ് പിന്നെ കുടിവെള്ളം ഇല്ലാത്തവർക്ക് വെള്ളം എ വെള്ളത്തിൻ്റെ സംവിധാനം ചെയ്തു കൊടുക്കുക പിന്നെ യാത്ര ചെയ്യാനുള്ള റോഡ് റോഡുകളാണേ തന്നെ പിന്നെ എന്തെങ്കിലും ബസ്സ് റൂട്ടോ എന്തെങ്കിലൊക്കെ സ്ഥലത്തിൻ്റെ കുറവോ അങ്ങനെയെന്തെങ്കിലും ഉള്ളവർക്കൊക്കെ ഞ ഞ്ഞ അവർ സർക്കാരിൻ്റെ പദ്ധതികൾ കൊണ്ട് കുറേ അനുകുല്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ എന്തേ അംഗവൈകല്യം ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ നാല് ചക്രം ഉള്ള വണ്ടികളും ബൈക്കുകൾ അങ്ങനെ ആ അവർക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവർക്കായിട്ട് കൊടുക്കുകയെന്നൊക്കെ ഉണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അവരിങ്ങനെ കാലുകൊണ്ട് വയ്യാ കൈകൊണ്ട് നടക്കാനൊന്നും പറ്റാത്ത ആളുകളൊക്കെയാണേ വീട്ടിൽ ഒതുങ്ങി കൂടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികളൊക്കെ ഇറക്കി അവരെ പൊതു സമൂഹത്തിലേക്കിറക്കി എന്തെങ്കിലും പണി ഇല്ലെങ്കിൽ തന്നെ പണിയെടുക്കാൻ പറ്റുന്നില്ലേ തന്നെ വണ്ടികളിൽ പുറത്തോട്ടൊക്കെ സഞ്ചരിക്കാനൊക്കെ പറ്റും അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ പദ്ധതികളിൽ ഉൾപ്പെടുന്നുണ്ട്